ആ മാഡം ഞാൻ ആ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ ആണ് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് മുമ്പത്തെ അവരെ വർക്കുകളൊക്കെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം ആണ് ചെയ്തിട്ടുള്ളത്

ആ സോറി സാർ ഞാൻ ഇനി അത് ശ്രദ്ധിച്ചോളാം ഞാൻ അവരെ വിളിച്ച് ഒന്നും കൂടെ സംസാരിക്കാവുന്നതാണ് സാർ ഇപ്പോൾ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തവർ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു മുമ്പത്തെ അവർ അത് റെസ്യൂമ് ഒക്കെ നോക്കി മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഒക്കെ നോക്കിയ ശേഷം ആണ് അവർ എടുത്തത് അവർ എനിക്ക് തോന്നുന്നു അവർക്ക് ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും സാർ ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കണം സാർ അവർ നന്നായിട്ട് ചെയ്യുന്നവരാണ് ഞാൻ തന്നെ നേരിട്ട് അവർ ഓക്കെ ഞാൻ അവരെ വിളിച്ച് ഒന്ന് സംസാരിച്ചിട്ട് അത് വേറെ ഒരു ടീമിനെ ഏർപ്പാട് ആക്കാം എങ്കിൽ ഇപ്പോൾ ഉള്ള പ്രോജക്റ്റ് മറ്റൊരു ടീമിന് കൊടുക്കാം സാർ ഒരു വീക്ക് ആണോ സാർ കുറച്ചും കൂടി സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമോ അവിടെ എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ അധികം വർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഇത് വ്യക്തം ആയി ഈ പ്രോജക്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തത് ഓക്കെ സാർ പിന്നെ ആ പ്രോജക്റ്റിൻ്റെ ആ എന്തൊക്കെ ആണ് അവിടെ മിസ്റ്റേക്സ്ന്ന് ഒന്ന് അവർക്ക് ഒന്ന് എക്സ്പ്ലയിൻ ചെയ്ത് കൊടുക്കണം സാർ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇനി ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം സാർ സോറി ഓക്കെ ഞാൻ അവരടുത്ത് നന്നായിട്ട് എക്സ്പ്ലയിൻ ചെയ്ത് കൊടുക്കാം അവരുടെയടുത്ത് നന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് അത് ചെയ്യാം സാർ സോറി സാർ ഇത് റിപ്പീറ്റ് ചെയ്യില്ല താങ്ക് യൂ